ഇന്ത്യയുമായിട്ട് നമ്മള് കേരളത്തിനെ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളാണ് കാലക്രമേണെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മടെ കേരളത്തില് വരുമാന നിരക്കെന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് കാരണം ആളുകൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആൾ ജോലി ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല അവരുടെ എജുക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഒരു ജോലി നമ്മുടെ കേരളത്തിൽ ഇന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ജോലി ചെയ്യാൻ മടിയാവുകയും കേരളത്തിലുള്ള ജനങ്ങള് പുറം നാടുകളിൽ പോയിട്ട് എന്തെയ്യാണ് ജോലി ചെയ്യാൻ ശ്രമിക്കുവാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ ഇത് ഉണ്ടാവില്ല അവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ അവര് തയ്യാറാവുന്നില്ല അതിനനുസരിച്ച് കൊണ്ട് അവരിൻ്റെ വരുമാനം ഉണ്ടാവണത് കുറവാണ് പിന്നെ പാർപ്പിടം എന്ന് പറയുകയാണെന്നുടെങ്കിലും അവരുടെ ഡെൻസിറ്റീന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഡെൻസിറ്റീന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് ഒരു കുഞ്ഞ് ഏരിയേയില് പോലും ഒരുപാടാളുകൾ താമസിച്ച് തിങ്ങി തിങ്ങിക്കൂടി താമസിക്കുന്ന ഒരുപാട് ആൾകാരുണ്ട് പക്ഷെ നമ്മൾ എജുക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ നിലവിൽ നോക്കാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നല്ല എജുക്കേഷൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഒക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതല് എജുക്കേഷൻ ഉള്ള സ്റ്റേറ്റാണ് നമ്മുടെ കേരളമെന്ന് പറയുന്നത് നന്നായി പഠനം നല്ല രീതിയില് കഴിവും മികവും ഉള്ള കുട്ടികളും ഒരുപാട് ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് നമ്മുടെ ലൈഫ്സ്റ്റൈലിനെ മാറ്റുന്ന തരത്തിൽ നമുക്ക് അത് ഉപയോഗിക്കാനൊരു അവസരം കിട്ടുന്നില്ലാന്ന് നമ്മുടെ കേരള മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിനൊരു പ്രധാന പ്രശ്നം തന്നെയാണ്